ഈ കാലത്ത് എല്ലാവരും സ്മാർട്ട് ഫോണാണ് കൂടുതൽ യൂസ് ചെയ്യണത് അതുപോലെത്തന്നെ ആപ്പുകളാണെങ്കിലും ആപ്ലിക്കേഷനാണെങ്കിലും എല്ലാവർക്കും ഫോണിലായതുകൊണ്ട് നമുക്ക് അപ്പഴേക്കപ്പഴേ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം യൂസ് ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാവുന്ന ആൾക്കാരാണ് കൂടുതലും യൂസ് ചെയ്യണത് ഗെയിംസൊക്കെയാണ് ഇപ്പോൾ ഗെയിംസൊക്കെ ഫോണിലാണ് എല്ലാവരും കളിക്കുന്നത് പുറത്തൊന്നും പോയി കളിക്കാറില്ല അതേപോലെ നമുക്ക് എന്ത് ന്യൂസാണെങ്കിലും അതേപോലെ എന്ത് വിവരങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ യൂറ്റൂബ് വിക്കീപീഡിയ ഗൂഗിൾ പോലുള്ള അതിൽനിന്ന് എന്ത് കാര്യം വേണമെങ്കിലും നമുക്കറിയാൻ പറ്റണുണ്ട് പെട്ടന്ന് തന്നെ അറ്റ് എ ടൈം ഈ ലോകത്ത് നടക്കണ എല്ലാ കാര്യവും നമുക്ക് ഒരു വിരലിൽ ഇതിലറിയാൻ പറ്റും ഇൻറ്റർനെറ്റുണ്ടെങ്കിൽ എല്ലാം നമുക്ക് അപ്പഴേക്കപ്പഴേ അറിയാൻ പറ്റുന്ന ഒരു ഇതാണുള്ളതിപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഒരു ഇതാണ് ഈ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതാണ് പിന്നെ ഗെയിംസിംഗ് ആപ്പൊക്കെ യുസ് ചെയ്യുമ്പോൾ ഉണ്ടാവണ ദോഷങ്ങളെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് പോയി കളിക്കും പണ്ടൊക്കെ എല്ലാവരും ഈ ചെറിയ ടൈപ്പ് ഫോണൊക്കെയുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസൊന്നും ഗെയിമിങ്ങ് ആപ്ലിക്കേഷൻസൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മള് പുറത്ത് പോയി ഗ്രൗണ്ടിലൊക്കെയാണ് കളിക്കാൻ പോവുക അതേപോലെ നമ്മള് വീട്ടിലിരിക്കാറില്ല ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും പുറത്തുള്ളവരുമായിട്ട് പരിചയമില്ലായ്മ അതേപോലെ ചുറ്റും എന്താ നടക്കണത് പുറത്തും നമ്മുടെ നാടിന്റെ പുറത്തും നമ്മുടെ വീടിന്റെ പുറത്തൊന്നും നടക്കണതറിയില്ല ആരെയും പരിചയവുമില്ല അതേപോലെ നമ്മൾ ഫിസിക്കലായിട്ട് സ്ട്രെങ്ത്തില്ല അതേപോലെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്ത് കമ്മിയാവുകയാണ് പിന്നെ എന്താണെന്നു വെച്ചാൽ നമ്മൾ മടി പിടിക്കും എല്ലാ കാര്യത്തിനും മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങും നമുക്ക് പല രോഗങ്ങളും വരും ഇത് മൂലം ഇതൊക്കെയാണ് ഇതും ദോഷങ്ങളായിട്ടുള്ളത്